എൻ്റെ കയ്യിലിരിക്കുന്നത് മൊബൈൽ ഫോൺ ആണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാം അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് ആ എന്താണ് പറയുക ഇപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്താണ് പറയുക ഇപ്പോൾ റ്റി എന്തെങ്കിലും വീഡിയോസ് കാണും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാണാനുള്ള സൗകര്യം അതിനകത്തുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം എവിടെയെങ്കിലും നമുക്ക് കൊണ്ട് പോവാൻ നേരത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാന്റിന്റെ പോക്കറ്റിലിട്ട് കൊണ്ടുപോവാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോവാം നമുക്കിപ്പോൾ സേ അതാണ് എവിടെയെങ്കിലും പോയി നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ചിരിക്കുവാണെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് ഇപ്പോൾ സിനിമ കാണാനോ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും മൊബൈൽ ഫോൺ ആണ് മെയിൻ ആയിട്ട് ഉള്ളത് നമ്മൾ സമയം പോവുന്നത് തന്നെ അറിയില്ല ആ അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നതിനും പിന്നെ നല്ല കാര്യങ്ങൾക്കും നല്ലതാണ് വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് നമുക്കെല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും നമുക്കെന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മൊബൈൽ ഫോണിനുള്ളിൽ നമ്മൾ ട്ടാ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് ഉള്ള ഒരു മൊബൈൽ ആണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സ്പോട്ടിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്